ഹലോ കെ എസ് ഇ ബി അല്ലേ ഇത് ആ ഓക്കെ ഞങ്ങള് പിന്നെ ഞങ്ങള് വീട്ടില് ഒരു വർഷത്തേക്ക് ആളുകളൊന്നും ഉണ്ടാവുകയില്ല ഞങ്ങള് വിദേശത്ത് പോകുകയാണ് അതെ ഞങ്ങള് ഹസ്ബൻറ്റും മക്കളും എല്ലാവരും പോകുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് അഡ്വാൻസായിട്ട് ബിൽ അടയ്ക്കാൻ പറ്റുമോ ഓക്കെ അടച്ചിട്ടില്ലെങ്കില് നമ്മുടെ ഫ്യൂസ് ഊരുമോ കണക്ഷനും കട്ട് ചെയ്യുമോ

ഓക്കെ അപ്പം നമുക്ക് അഡ്വാൻസായിട്ട് പൈസ അടക്കാൻ പറ്റുമോ

അപ്പം ഞങ്ങളെത്ര അടയ്ക്കേണ്ടി വരും ഞങ്ങളാറ് മാസം കഴിഞ്ഞിട്ടൊക്കെയേ വരികയുള്ളൂ ചിലപ്പോൾ ഒരു വർഷമൊക്കെ ആകും ഓക്കെ അപ്പം ഞങ്ങളെത്ര അടക്കേണ്ടി വരും അയ്യായിരം അയ്യായിരം അടച്ചാല് ബാക്കി തുക ഞങ്ങൾക്ക് അഡ്വാൻസായിട്ട് തിരിച്ച് തരുമോ ഞങ്ങളുടെ അടുത്ത ബില്ലില് കിട്ടുമോ ഓക്കെ